ഹലോ ആരാ മ്മ് ഓക്കെ മാഡം ആ എടുത്തിട്ടുണ്ട് ആ ആ

ആ ഫലപ്രദമായിട്ട് അടച്ചുകൊണ്ട് പോവുന്നുണ്ട് കുഴപ്പം ഇല്ല ആ വലിയ എമൗണ്ട് ഇല്ലാത്ത രീതിയിൽ പോവുന്നുണ്ട് കുഴപ്പം ഇല്ല

ആണോ ആ ആ എത്രയാ അത് ആ ആ

ഇറ്റ്സ് ഓക്കെ ആ അതൊക്കെ എങ്ങനെ ഇയർലി ആണോ മന്ത്ലി ആണോ അ ആ കളിപ്പീരൊന്നും അല്ലല്ലോ ഇല്ലിയോ ഗവൺമെൻ്റിൻ്റെ ആന്നില്ലയോ മ്മ് മ്മ് ആളൊക്കെയുണ്ടോ ചേരുന്നുണ്ടോ പൊതുവേ ആ ആ ആ ഇപ്പം ഡെയിലി അസുഖങ്ങളൊക്കെ കൂടി കൂടി ഇരിക്കുവല്ലെയോ പിന്നെ നമുക്ക് ഇപ്പോൾ വേറൊരു ഇൻഷുറൻസൂടെ ഉണ്ടങ്കിൽ നമുക്കു വീണ്ടും അടുത്തതിനകത്ത് ചേരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ കുഴപ്പം ഇല്ല മ്മ് എല്ലാ ആശുപത്രികളിലും ഉണ്ടായിരിക്കുമോ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ്

ആ മ്മ് നല്ലതാ ആ പക്ഷെ അടവിൽ എന്തെന്തെങ്കിലും ഒരു നമുക്കൊരു പ്രാവശ്യം അടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് പിന്നെ ലാപ്സ് ആയി പോവുമോ ആന്നില്ലെയോ ആ മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് അപ്പൾ ഒരു കാര്യം ചെയ്യ് മാഡം ഒരു ദിവസം എൻ്റെ വീട്ടിലോട്ട് വാ നമുക്ക് നോക്കി അതെടുക്കാം

ആ ആ ആ ആ പൈസ ആ അപ്പഴ് സമയം പോലെ വാ എന്നാൽ വീട്ടിലോട്ട് വരുമ്പോൾ ഞാനത് നോക്കിയിട്ട് ഏതിൻ്റെയാണെന്ന് വെച്ചാൽ എടുക്കാം മേടം അപകട ആ

നമുക്ക് പൈസ ആന്ന് എല്ലാം മ്മ് മ്മ് നല്ലതാ അല്ലേ മ്മ് മ്മ്